ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറഞ്ഞാല് മുതിർന്നവരെ ഞങ്ങളൊന്നും അങ്ങനെ ബഹുമാനിക്കാറൊന്നും ഇല്ലായിരുന്നു ഞമ്മള് കുട്ടികളായിരുന്നു സമയത്ത് എല്ലാവരും എല്ലാവരെ പോലെയും മുതിർന്നവരെ ഞങ്ങൾ കണ്ടു ഇന്നലെ വീട്ടില് ആരെങ്കിലുവൊക്കെ വന്നാൽ വേഗം എഴുന്നേറ്റ് നിൽക്കുകയോ അവരെ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു എന്നാല് അവര് പോയതിന് ശേഷം വീട്ടിലുള്ള അമ്മയും അച്ഛനോക്കെ ഞങ്ങളെ വഴക്ക് പറയുകയും ചീത്തപറയുകയും പിന്നീട് പറഞ്ഞ് തരികയും ചെയ്തു അതിനനുസരിച്ച് നമ്മളത് പിന്നീടത് ചെയ്യാറും ഉണ്ട് അവര് അതിൻ്റെ പേരില് കുറെ നമ്മള് ചീത്ത കേട്ടിട്ടുവുണ്ട് അതിൻ്റെ പേരില് നമ്മളൊരുപാട് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട് അന്ന് നമ്മളൊരു തീരുമാനം എടുക്കും പിന്നീട് നമ്മളൊരു തീരുമാനം എടുക്കും ഇനി മുതൽ ആരെങ്കിലും വരികയാണെങ്കിൽ വേഗം എഴുന്നേറ്റ് നിൽക്കണം അവരെ ബഹുമാനിക്കണം അവരോട് നല്ല രീതിയില് സംസാരിക്കണം എന്നൊക്കെ നല്ലൊരു അങ്ങനൊരു പാഠം പഠിച്ചിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഹസ്ബെന്റിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവരുമായിട്ട് പൊരുത്തപ്പെടാൻ ഒരുപാട് സമയം എടുക്കും പിന്നെ അവര് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ദേഷ്യത്തോടു കൂടിയാണ് നമ്മള് കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ തെറ്റായ കാര്യങ്ങളുവാണ് അതൊക്കെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്